ബീച്ച് പോയി ഇരിക്കാനായിട്ട് നല്ല ഒരിഷ്ടമാണ് കാര്യം സൂര്യാസ്തമയ സമയത്ത് ബീച്ചിൽ ഇരിക്കുമ്പം തന്നെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനായിട്ട് സാധിക്കും എല്ലാവരും മനസ്സ് തുറന്ന് അതായത് പ്രായഭേദമന്യെ എല്ലാവരും ബീച്ചില് വരാറുണ്ട് അപ്പം വന്നിരിക്കുമ്പം പലരും പല രീതിയിലാണ് എങ്കിലും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ആ കുറച്ച് നേരം നമുക്ക് അവിടെ സ ചിലവഴിക്കാനായിട്ട് പറ്റും അതിനിടയിൽ പിള്ളേർ പട്ടം പറത്തുന്നതും കപ്പലണ്ടിക്കച്ചവടം അപ്പം ആ കപ്പലണ്ടി വാങ്ങിച്ച് കൊറിക്കുക അതൊക്കെ ഇതിനിടയിൽ ഒരു രസം ഉള്ളൊരു കാഴ്ചയാണ് പിള്ളേർ വെള്ളത്തിൽ ചാടുകയും അതിൽ ചാടുമ്പോഴത്തേനും തിര വന്ന് മൂടുമ്പം അതും ഒക്കെ കാണാനുള്ളൊരു ഇഷ്ടമാണ് അതിനിടെ സൂര്യാസ്തമയം നടന്ന് കൊണ്ടിരിക്കുമ്പം അത് നല്ലൊരു ഇമ്പമേറിയൊരു കാഴ്ച തന്നെയാണ് നമ്മുടെ എല്ലാം പ്രശ്നങ്ങളും ആ സമയം നമുക്ക് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് പിന്നെ ഒത്തിരി ആളുകൾ അവിടെ വരുമ്പോഴത്തേനും അവരും കടലിൽ ഇറങ്ങുകയും പിള്ളേരും എല്ലാം ഇറങ്ങി അവരുടെ സന്തോഷങ്ങൾ കാണുമ്പം നമുക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അവിടെ ഇരുന്ന് അസ്തമയം കണ്ട് നമ്മുടെ സമയം ചിലവഴിക്കുമ്പോഴത്തേന് നമ്മൾ വീട്ടിൽ ഉൺ വീട്ടിൽ നിന്ന് ചിലപ്പം സങ്കടപ്പെട്ടായിരിക്കും പോന്നത് എങ്കിലും അതെല്ലാം നമുക്ക് ആ സമയത്ത് മറന്ന് പോകാനായിട്ടുള്ളൊരു അനുഭവമാണ് ആ ബീച്ചിൽ വന്ന് സൂര്യാസ്തമയം കണ്ടുകഴിയുമ്പം നമുക്ക് അനുഭവപ്പെടുന്നത്